ആരായിരുന്നു വിളിക്കുന്നത് ആ അതെ അതെ ആണോ ആ എന്താ ഏച്ചി പറ അ ആണോ ആണോ ആണ് ചേച്ചി ഇത്ര നാളും അടുപ്പിലാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആണല്ലേ ഗ്യാസുപയോഗിക്കാനായിട്ടല്ലേ ചേച്ചി അതായത് നമ്മൾ കൂടുതൽ പേടിക്കുകയൊന്നും വേണ്ട ഇതല്ലേ ആ അ ചേച്ചി ആ ഒന്നാമത്തെ കാര്യം ചേച്ചിക്ക് ഭയം വേണ്ട അത് പേടിക്കുകയേ വേണ്ട കേട്ടോ ചേച്ചി ധൈര്യമായിട്ട് ഇരുന്നോ അത് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പഴത്തേക്ക് അതിന്റെ കാര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് മെയ്ൻ ആയിട്ട് സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അടുപ്പ് അത് നമ്മൾ അടുപ്പിൽ കത്തിക്കുമ്പഴത്തേക്കുവേ ലൈറ്ററ് ലൈറ്ററ് നല്ല ലൈറ്ററൊക്കെ ഉപയോഗിച്ച് അത് കത്തിക്കുക അത് ഓണുവോഫുവൊക്കെ ചെയ്യണം അത് അത് താഴെ ഒരു ബട്ടണുണ്ട് അത് മേളോട്ട് വെക്കുമ്പഴത്തേക്കും അത് ഞങ്ങൾ ഇവിടുന്ന് ആളെ വിട്ടിട്ട് ചേച്ചി കാണിച്ചുതരാ കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ചേച്ചിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇല്ല ചേച്ചി അങ്ങനെ ഒന്നും ലീക്ക് ലീക്ക് ആകാറില്ല ഇനി അങ്ങനെ ഇനി ചേച്ചി ഇങ്ങനെ അടുക്കളയിലോട്ട് വരുമ്പഴത്തേക്ക് എന്തെങ്കിലും സ്മെലൊക്കെ ഉണ്ടെങ്കിൽ വായു സഞ്ചാരമുള്ള ജനലൊക്കെ തുറന്നിടണെ പകലൊക്കെ തുറന്നിട് കതകും ജനലുമൊക്കെ തുറന്നിടണം പിന്നെ മണം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേച്ചി പെട്ടെന്ന് വന്ന് ഈ മറ്റേ അടുക്കളയിലോട്ട് വന്ന് സുച്ച് ഫാനുമൊന്നും ഓൺ ആക്കരുതേ ചേച്ചി പയ്യെ വന്ന് എല്ലാമൊന്ന് കയറി നോക്കിയിട്ട് മണമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചേച്ചി ആ കുറ്റി അങ്ങ് ഓഫ് ചെയ്യുക ആ അടുക്കളയ്ക്ക് ഇല്ലില്ല അടുക്കളയ്ക്ക് അകത്ത് ഇത് വയ്ക്കുക പിന്നെ നമ്മുടെ ആ സ്റ്റൗവ്വ് ആ സ്റ്റൗ നമ്മൾ അടുക്കളയ്ക്ക് അകത്ത് വെച്ചിട്ട് നമ്മൾ സിലിണ്ടറ് പുറത്ത് വയ്ക്കുന്ന അങ്ങനെ ഇപ്പം ഒരു സംവിധാനമുണ്ടല്ലോ അതായിരിക്കും നല്ലത് ആണല്ലേ സിലിണ്ടറ് പുറത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ആ ചേച്ചി അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യ് ആ സിലിണ്ടറ് പുറത്ത് വെക്കുന്നതായിരിക്കും നമുക്ക് സുരഷിതം കേട്ടോ അല്ലാ എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മള് പെട്ടെന്ന് നനഞ്ഞ ചാക്കേ നമ്മുടെ ചണചാക്ക് നനച്ചിട്ട് പെട്ടെന്ന് അതിന്റെ മേളിലേക്ക് ആ സിലിണ്ടറിന് മേളിലേക്ക് ഒന്ന് അടയ്ക്കുക വായു കയറാത്ത രീതിയിൽ അടച്ച് വെയ്ക്കുക നല്ലായിട്ട് അ നനഞ്ഞ ചാക്ക് വെക്കണം സുച്ചിട്ട് വെച്ചാൽ മതി അത് കൂടുതലും നമ്മൾ സുരഷിതം രാത്രി കിടക്കാതെ കിടക്കുന്നതിന് മുമ്പ് അത് സിലിണ്ടറ് ഓഫ് ചെയ്യണം അത് നമ്മൾ മറക്കരുത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ സിലിണ്ടറ് ഓഫ് ആക്കി ഇടണം കേട്ടോ അങ്ങനെ ചെയ്യുക ആ ചെയ്യാം തീർച്ചയായും തീർച്ചയായും ഞങ്ങളുടെ ഹെൽപ്പ് ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ ഓക്കെ ചേച്ചി